ഞങ്ങളുടെ പ്രദേശത്ത് പ്രധാനമായും പ്രസിദ്ധീകരിക്കുന്ന മാസികകളാണ് വനിത മംഗളം മനോരമ എന്നിവയൊക്കെ മംഗളവും മനോരമയും ആഴ്ചയിൽ ഒരിക്കലാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ രണ്ടാഴ്ച കൂടുമ്പം പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് വനിത സ്ത്രീകൾക്കായുള്ള ഒരു ആനുകാലിക പ്രസിദ്ധീകരണമാണ് വനിത മലയാള മനോരമയാണ് ഇത് പ്രൃസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ മാസിക പ്രൃസിദ്ധീകരിക്കാൻ ആരംഭിച്ചത് മലയാള മനോരമയുടെ സ്ഥാപകനായ കെ മാത്യുവിൻ്റെ ഭാര്യയായ അന്നമ്മ മാത്യു ആണ് വനിതാ മാസികയുടെ സ്ഥാപക ഇതിൻ്റെ ഹിന്ദി പതിപ്പും ഉണ്ട് കോട്ടയത്താണ് മലയാള മനോരമ പബ്ലിക്കേഷൻസ് സ്ഥിതി ചെയ്യുന്നത് ആ ഇത് സ്ത്രീകൾക്ക് അറിവും വഴികാട്ടിയുമായി പ്രവർത്തിക്കുന്നു കൂടാതെ കുട്ടികൾക്കായിട്ടുള്ള മാസികകളാണ് ബാലരമ ബാലമംഗളം എന്നിവയിൽ കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുന്നവയാണ് ഈ മാസികകൾ വായനയോട് താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നതിന് കുട്ടികൾക്ക് ഇത് പ്രയോജനകരമായി തീരാറുണ്ട് ബാലരമയും മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമാണ് കൂടാതെ മനോര ബാലരമ ഡൈജസ്റ്റ് എന്ന ഒരു അറിവും പ്രധാനം ചെയ്യുന്ന മാസിക കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതും എല്ലാവർക്കും വളരെയേറെ പ്രയോജനകരമാണ് പിന്നെ പ്രദേശത്തെ വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മാസികൾ വളരെയേറെ പ്രയോജനകരമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും വനിതയാണ് സാധാരണ കൂടുതലായി പ്രസിദ്ധീകരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ മംഗളം മനോരമ എന്നീ വീക്കിലികൾ വാങ്ങിച്ചു വായിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ ദൃശ്യ മാധ്യമങ്ങളുടെ അമിതമായ തള്ളിക്കയറ്റം മൂലം വായനയോടുള്ള താല്പര്യം ആൾക്കാർക്ക് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ സീരിയലുകളിൽ സീരിയലുകൾക്കാണ് കൂടുതലായും പ്രാധാന്യം കൊടുക്കുന്നത് ഇത് മൂലം വാരികകളുടെ

കുറഞ്ഞു വരുന്നു വരുന്നു എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വനിത എന്ന മാസിക പ്രസ്ദ്ധീകരിക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഏകദേശം മില്യനോളം വായനക്കാർ ഇതിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മലയാളം ഹിന്ദി എന്നിവയിലും ഈ വനിത പ്രസിദ്ധീകരിക്കുന്നുണ്ട്

മലയാള മനോരമയുടെ തന്നെ മറ്റൊരു മാസികയാണ് സമ്പാദ്യം എന്നുള്ള മാസിക സമ്പാദ്യം എന്ന മാസിക നമ്മുടെ സാമ്പത്തികമായ വളർച്ചക്ക് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ നല്ല ഒരു വീട് വയ്ക്കുന്നതിനും സാമ്പത്തിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിനും ഒക്കെ വളരെ പ്രയോജനകരമായ ഒരു മാസികയാണ് ഈ സമ്പാദ്യം ഇതും മലയാള മനോരമ പബ്ലിക്കേഷൻ്റെയാണ് ഇതിൻ്റെ ആസ്ഥാനം കോട്ടയം തന്നെയാണ് പിന്നെ ഉള്ള ഒരു കൽക്കി എന്നുള്ള ഒരു വാരികയുണ്ട്

എല്ലാവരും വായിക്കുന്നില്ല എങ്കിലും അതിനും വായനക്കാരുണ്ട്

പിന്നെ രാഷ്ട്രീയ മേഖലയിലും വ്യത്യസ്ഥമായ വീക്കിലികൾ വരുന്നതായി കാണാൻ സാധിക്കും അതും രാഷ്ട്രീയ ചിന്തകൾ ആൾക്കാരുടെ ഇടയിൽ വളർത്തി എടുക്കാൻ വളരെ പ്രയോജനകരമാണ് എന്നു നിസംശയം പറയാൻ സാധിക്കും എറ്റവും കൂടുതൽ വായനക്കാർ ഉള്ളത് ഉറപ്പായും വനിതയ്ക്ക് തന്നെയാണ് കുട്ടികളുടെ ഇടയിൽ ബാലരമയ്ക്കുമാണ് ബാലരമയിലുള്ള ചിത്രകഥയായ മായാവി ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയല്ലാത്ത കഥാപാത്രമാണ് കുട്ടൂസൻ ഡാകിനി എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഈ ബാലരമയിൽ ഉണ്ട് അത് കുട്ടികൾക്ക് രസകരവും വിനോദത്തിനും ഉപകരിക്കപ്പെടുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും നമ്മുടെ പ്രദേശത്തുള്ള വാരികകൾ ഇവ എല്ലാമാണ് എന്നു നമുക്ക് കാണാൻ സാധിക്കും